ഞാന് പുറത്തൊന്നും എനിക്കൊത്തിരി പോവാൻ എനിക്കിഷ്ടമല്ല എനിക്ക് സൈക്ലിങ്ങില് പോവാനിഷ്ടം പാലക്കാട് ഗ്രാമം അഗ്രഹാരം ഒക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ് ഇഷ്ടമാണ് അതേപോലെ തന്നെ ആലപ്പുഴ പോകണം എന്നാഗ്രഹമുണ്ട് പിന്നെ ആ അങ്ങനെ അത്ര സ്ഥലങ്ങളൊക്കേയുള്ളൂ പാലക്കാട് കാണണം എന്നാണെനിക്കാഗ്രഹം പാലക്കാട് ഒരു വില്ലജാണ് ഞാൻ കണ്ടിട്ടില്ല അഗ്രഹാരമൊക്കെ ഉണ്ട് അപ്പോൾ സൈക്കിളിലൊക്കെ പോവാൻ നല്ല ഇതായിരിക്കും ചവിട്ടി നമുക്കൊരെക്സസൈസാവും പോവുമ്പോൾ ഒരു സന്തോഷമാവും അതാണെനിക്കിഷ്ടം പിന്നേ അതെന്നെ പാലക്കാട് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് പോകണമന്ന് ഭയങ്കര ആഗ്രഹമാണ് കുറെ കാലത്തെ ആഗ്രഹമാണ് അപ്പം ഒരു ദിവസം നമുക്ക് കിട്ടുവാണെങ്കില് സന്ദർശിക്കാൻ പറ്റുകയാണേൽ അവിടുന്ന് തന്നെ സൈക്കിളെടുത്ത് അവിടെയൊക്കെ ഒന്ന് കറങ്ങുക പക്ഷെ ഭയങ്കര തിരക്കേറിയ ഒരു ജില്ലയും കൂടിയാണ് തിരുവനന്തപുരം എന്നെനിക്കറിയാം പക്ഷെ എനിക്ക് പോകാൻ ഒത്തിരി ഇഷ്ടമാണ് സൈക്കിളിങ്ങ് പോവുന്നത് ഇഷ്ടമാണ് രണ്ട് മൂന്ന് പേരുണ്ടെങ്കില് സൈക്ലിങ്ങ് പോവുന്നത് സന്തോഷമുള്ളൊരു കാര്യമാണ്